എനിക്ക് ഏറ്റവും പ്രിയതമമായിട്ടുള്ള ബാല്യകാല സ്മരണകൾ എന്നുപറയുന്നത് എൻ്റെ സ്കൂൾ ജീവിതമാണ് വളരെയധികം ഞാൻ അതിൽ ആകാംഷകൊള്ളുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം എൻ്റെ സ്കൂൾ ജീവിതം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെക്കാളും തികച്ചും വ്യത്യസ്തമാണ് പഠന കാര്യങ്ങളിലാണെങ്കിലും വിനോദ കാര്യങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നു ഞാൻ അതുകൊണ്ടുതന്നെ കുട്ടിക്കാല ചില കളികളും കുട്ടിക്കാല കൂട്ടുകാരെയും ഞാൻ ഒരുപാട് അധികം മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അവരെല്ലാം തന്നെ വളരെയധികം എൻ്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ച ഒരാളായിരുന്നു എൻ്റെ ഒരു ആ ഒരു എന്താ ഒരു മനസ്സ് എന്താ ഒരു മനസ്സുമായിട്ട് വളരെയധികം ഒത്തുചേരുന്നതും അതുപോലെതന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കാഴ്ച്ചപ്പാടുകളും അതുപോലെതന്നെ അഭിപ്രായങ്ങളും എല്ലാം പലകാര്യങ്ങളിലും ഒരുപോലെയായി വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആ ഒരു വ്യക്തി ഞാൻ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലതന്നെ കുട്ടിക്കാല കളികളും സ്മരണകളും എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്